ഹലോ ഞാന് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് ഇത് ഞാന് ക്യാന്സൽ ചെയ്യാനാണ് വിളിച്ചത് നിങ്ങൾ സമയത്ത് എത്തിയിട്ടില്ല നിങ്ങളെ നിങ്ങളെ കമ്പനി ഡ്രൈവർക്ക് ഒരു ഉത്തരവദിത്തം വേണം അല്ലാതെ നിങ്ങൾ എന്ത് കൊണ്ടാണ് ഈ ഇത് വരുന്നത് ഞങ്ങളുടെ സമയത്തിന് പരിമിതിയില്ലെ അല്ലെ നിങ്ങളെന്ത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇത് കാണിക്കുന്നത് ഞങ്ങൾ പോ പല ആവിശ്യത്തിനും വേണ്ടിയാണ് ഈ ക്യാബ് ബുക്ക് ചെയ്യുന്നത് അത് പല കാര്യത്തിനാവാം അതിന് ഇത് അ സമയത്തെത്താന് വേണെ യൂബറ് പോലുള്ള ടാക്സികൾ നമ്മൾ ആശ്രയിക്കയാണ് അതുപോലും നിങ്ങൾ നേരേ ചൊവ്വെ ചെയ്യുന്നില്ലെങ്കിൽ എന്തൊരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഉണ്ട് അതെ നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ സംസാരിക്കുക പൈസ ഞങ്ങള് പൈസതലു ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വരണെ അത് ഞങ്ങൾക്ക്ക്കൊ ഒരു അത്യാവശ്യമൊരു ഹോസ്പിറ്റല് കേസിന് പോലും ഞാന് നിങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദമ്മളെന്തോര് പ്രൊട് പ്രൊടക്റ്റീവ് നിങ്ങൾ തരുന്നു നിങ്ങൾ നിങ്ങൾ ഒരു ഉപഭോക്താവെന്ന നിലയില് നിങ്ങൾ എനിക്ക് എന്താണ് നിങ്ങൾ തരുന്നത് എന്റെ പൈസ എനിക്ക് തിരിച്ച് തരേണ്ടതാണ് ഞാന് ക്യാന്സല് ചെയ്യാനാണ് വിളിച്ചത് എനിക്ക് അല്ലെങ്കിൽ ഞാന് കേസ് കൊടുക്കുന്നതാണ് പോലീസ് സ്റ്റേഷനിൽ ഞാന് കേസ് കൊടുക്കും എനിക്ക് ഒരു സമയത്തിന് വല്ല ബോധവുമുണ്ടോ എനിക്ക് നാളൊരു ഫൊ വര്ക്കിന് പോകണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലായി ഞങ്ങൾ വീട്ടിലൊരു വണ്ടി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞങ്ങൾ വിളിക്കുന്നത് അത്പോലും നിങ്ങൾ ഒരു യൂബറെന്ന് പറഞ്ഞ കമ്പനി മനസ്സിലാക്കാത്തത് വല്ലാത്തൊരു കഷ്ടമാണ് ഒന്നും പറയാന് തൊ